വയനാട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ഐതിഹ്യ കഥയാണ് ഇടയ്ക്കൽ ഗുഹയുടേത് ഈ ഗുഹ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് മുന്നേ ഉണ്ടായതായാണ് ചരിത്രം പറയുന്നത് പ്രാചീന മനുഷ്യരിലേക്കും അവരുടെ ജീവിതത്തിലേക്കും സംസ്കാരത്തിലേക്കും ചരിത്രത്തിലേക്കും വെളിച്ചം തെളിയിക്കുന്ന ഒന്നാണ് വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹ മാനന്തവാടിയിലെ നെന്മിനി വി വില്ലേജിൽ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് പുരാതന മനുഷ്യൻ കല്ലിൽ കുത്തിയ മനുഷ്യ രൂപങ്ങളും മൃഗങ്ങളും ചിത്രങ്ങളും ജാമിതീയ ചിഹ്നങ്ങളുമൊക്കെ ഈ ഗുഹാഭിത്തിയിൽ ഇന്നും കാണാൻ കഴിയും ആധുനികതയിലേക്ക് സമൂഹം എത്തിയ വഴികൾ എന്ന പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവം ആയിരിക്കും ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് പ്രാചീന മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തെ അവരുടെ പൈതൃകത്തെ ഇതിൽ കാണാൻ സാധിക്കും